ഇന്ന് നമ്മുടെ നാട്ടിൽ ചില നാടൻ കലാരൂപങ്ങളൊക്കെ ഇല്ലാതായി കൊണ്ടിരിക്കാണ് ഇന്ത്യയിലക്കെ തന്നെയാണെങ്കിലും നാടൻ കലാരൂപങ്ങളാണ് കൂടുതലായിട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ കാര്യം എടുക്കണെങ്കിൽ ഇപ്പോൾ പണ്ടുകാലത്ത് ഉത്സവങ്ങൾക്കൊക്കെ അമ്പലങ്ങളിലൊക്കെ അരങ്ങേറിക്കൊണ്ടിരുന്ന തെയ്യം അതുപോലെതന്നെ കഥകളി അങ്ങനെയുള്ള കുറച്ച് കലകളക്കെ ഇന്ന് അന്ന്യം നിന്നുപോയിരിക്കയാണ് കഥകളിയൊക്കെ ഇപ്പോഴും കൂടുതലുണ്ട് പക്ഷേ തെയ്യം പോലുള്ള ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന കുറച്ചുകാര്യങ്ങളുണ്ട് അതുപോലുള്ള കാര്യങ്ങളക്കെ ഇന്ന് അന്ന്യം നിന്നുകൊണ്ടിരിക്കാണ് തെയ്യം പോലുള്ള തെയ്യത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് അപ്പം അതുപോലുള്ള കലാരൂപങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് നമ്മുടെ നാടിൻ്റെ ഒരു തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കലയാണ് നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാം അപ്പം അതുപോലുള്ള കലകൾ കൂടുതലായിട്ട് സംരക്ഷിക്കണം അതുകൂടുതലായിട്ട് ഇന്ന് സമൂഹത്തിൽ അത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്